പരിശീലനം ലഭിക്കണം എങ്കിൽ അവർ കോച്ചിങ് സ്റ്റാഫിനെ പോയി കാണണം അനുമതിയെടുക്കണം ഓരോ ക്ലബ്ബുകളിലേക്ക് ചെല്ലണം അവർക്ക് ഏത് ഇനത്തിനോടാണ് ഫുട്ബോൾ ആയിരിക്കാം ക്രിക്കറ്റ് ആയിരിക്കാം ഏത് കായിക ഇനത്തിനോടാണ് താൽപര്യം അതിൽ പോയി പങ്കെടുക്കുന്ന കോച്ചുകൾ ഇപ്പം ഹോളിഡേയ്സ് സാറ്റർഡേ സൺഡേ അതുപോലെയുള്ള ടൈമുകളിൽ ഓരോ ഗ്രൗണ്ടുകളിലായിട്ട് ട്രെയിനിങ് ക്യാമ്പുകൾ നടക്കാറുണ്ട് സമ്മർ ക്യാമ്പ് അങ്ങനെ ഒക്കെ നടക്കാറുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഇനങ്ങളിലേക്ക് വേണമെങ്കിൽ അവരോട് എന്ത് ചോദിക്കണം അത് അല്ലാത്ത പക്ഷം ആണെങ്കിൽ നമുക്ക് എവിടെനിന്നാണ് കിട്ടുന്നത് എന്ന് അറിയണം എങ്കിൽ നമുക്ക് ഇപ്പം യാതൊരു വിധം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്കൂളുകളിലെ സാറന്മാരോട് ചോദിക്കാം അവർ ഓരോ ക്ലബ്ബിലെ കോച്ചസിനെ പരിചയപ്പെടുത്തി തരും അല്ലെങ്കിൽ അറിയാവുന്ന കുട്ടുകാരോടോ അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ സ്പോർട്സിനോട് താല്പര്യമുള്ള സ്പോർട്സ് സാറന്മാരോട് അല്ലെങ്കിൽ ആ കൂട്ടുകാർ ഏതെങ്കിലും സ്പോർട്സിൽ പോയിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം അങ്ങനെ ക്ലബ്ബുകളിലേക്ക് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെന്ന് ചേരുന്നത് പിന്നെ ഏതെങ്കിലും ലീഗിൽ കളിക്കാൻ പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ലീഗിൽ കാണാൻ പോകുമ്പോഴത്തേനും അവരോട് ചോദിക്കാനായിട്ട് സാധിക്കും പിന്നെ ഫോൺ വിളിച്ചാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ഐ ഡിയും കാര്യങ്ങളൊക്കെ അങ്ങനെയുണ്ട് അതുവഴി നമുക്ക് തിരഞ്ഞെടുക്കാം ഓരോ സ്പോർട്സ് ക്യാമ്പിനും ഓരോ ഐ ഡിസ് കാര്യങ്ങളുണ്ട് അവരുടെ ക്യാമ്പിലോട്ട് ചെന്ന് ചോദിക്കാൻ പറ്റും അല്ലാതെ സ്കൂളുകളിൽ ചെന്ന് ചോദിക്കാനായിട്ട് സാധിക്കും അവിടുത്തെ ഗ്രൗണ്ടിൽ പരിശീലിപ്പിച്ചോട്ടെ അവരുടെ കോച്ചിൻ്റെ കീഴിൽ നിന്നോട്ടെ എന്നൊക്കെ ചോദിക്കാൻ പറ്റും